എൻ്റെ പ്രദേശത്ത് കൂടുതലും ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും അതിന് നെയ്യുന്നതിനോടനുബന്ധിച്ച് അത് നെയ്ത്തുശാലകള് ഒരു തൊഴിലായിത്തന്നെ എടുക്കുന്നവരൂണ്ട് നെയ്ത്തുശാലകൾ ഉള്ളവരും ഉണ്ട് അപ്പോള് ഈ നെയ്ത്ത് എന്നു പറയുന്നത് ഒരു തൊഴിലായി സ്വീകരിക്കുന്ന ഒരു കൂട്ടം പ്രദേശവാസികൾ എൻ്റെ പ്രദേശത്തുണ്ട് അപ്പോള് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രദേശത്തെ കരകൗശല മേഖല എന്ന് പറയാം അതുപോല തന്നെ കൂടുതലും നെയ്ത്ത് ഖാദി വസ്ത്രങ്ങൾ അതുമായി ബന്ധപ്പെടുന്ന ഒരു കരകൗശലം മേഖലയാണ് എൻ്റെ പ്രദേശത്ത് കൂടുതലും കാണാൻ സാധിക്കുന്നത് പക്ഷെ ഈ കേരളം എന്ന സംസ്ഥാനത്തിലെ മറ്റു പ്രദേശങ്ങളിൽ കൂടുതലായും ഇത് കാണാൻ സാധിക്കില്ല ഓരോ പ്രദേശത്തെയും അവിടത്തെ വൈവിധ്യം അനുസരിച്ച് ഓരോ പ്രദേശത്തെയും കരകൗല് കരകൗശല മേഖല വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എൻ്റെ പ്രദേശത്ത് ബാലരാമപുരം എന്ന് പറയുന്ന ഉണ്ട് അപ്പോള് അതൊരു മാഞ്ചെസ്റ്ററെന്നാണ് പറയുന്നെ ഖാദി വസ്ത്രങ്ങളുടെ മാഞ്ചെസ്റ്റർ അതുകൊണ്ടു തന്നെ ഇവിടെ കൂടുതലും നെയ്ത്ത് കരകൗശല കാര്യങ്ങള് ഇങ്ങന നടക്കുന്നുണ്ട് വിദേശത്തിന്ന് പോലും ഇവിടെ വന്ന് ആൾക്കാര് ഖാദി വസ്ത്രങ്ങൾക്ക് ഓർഡർ കൊടുക്കുകയും വിപണിയിലേക്ക് എത്തിക്കാന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോള് ഇതാണ് എൻ്റെ സ്ഥലത്ത് വരുന്നോണ്ടിരിക്കുന്ന ഒരു കരകൗശല ഒരിതെന്ന് പറയുന്നത് പിന്ന അതുപോലെതന്നെ ഇപ്പോള് കൂടുതലും കുടുംബശ്രീ വഴിയായി ആളുകൾ വീട്ടിൽ തന്നെ ഹോംമേയ്ഡായിട്ട് പല സാധനങ്ങൾ നിർമിക്കുകയും ആർട്സ് ക്രാഫ്റ്റ് പുത് മുതലായ സാധനങ്ങൾ ഓരോ ചിരട്ടകളിലും മാറ്റ് പാഴ്വസ്തുക്കളിലൊക്കെ നിർമിച്ച് കൊടുക്കുന്നുണ്ട് അതും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് പാരമ്പരാഗതമായി നിൽക്കുന്ന കരകൗശല വിദ്യ എന്നു പറയുന്നത് നെയ്ത്ത് തന്നെയാണ്